എനിക്ക് പ്രത്യേക കഴിവുകളോ ശേഷികളോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എനിക്ക് പാട്ടു പാടാനുള്ള കഴിവും ചിത്രം വരയ്ക്കാനുള്ള കഴിവും നൃത്തം ചെയ്യാനുമുള്ള കഴിവും ഉണ്ട് അതിലേക്ക് എത്തിച്ചേർന്നുവെന്ന് ചോദിച്ചാൽ എനിക്ക് ജന്മനാൽ ലഭിച്ചതാണ് എൻ്റെ പാട്ടു പാടാനുള്ള കഴിവ് പാട്ടു പാടുന്നത് ഞാൻ വർഷങ്ങളോളമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ട് സംഗീതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായി അതിലേയ്ക്ക് ആഴ്ന്നിറങ്ങി ദിവസേന സാ സാ സാധകം ചെയ്യുന്നതാണ് ദിവസേനയുള്ള സാധകം തന്നെയാണ് എനിക്ക് അത് ഉന്നത രീതിയിലേക്ക് എത്തിക്കാനും അതിനെ വളർത്താനും എനിക്ക് സാധിച്ചത് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് എന്ന് പറയുമ്പോൾ ഞാൻ പെൻസിൽ ഡ്രോയിങ് എന്ന ആർട്സ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വർഷങ്ങളായിട്ടുള്ള പഠനം പഠനം തന്നെ എനിക്ക് മുന്നോട്ടുള്ള അതിൻ്റെ പ്രത്യേക രീതികളും അതിനോട് അതിനെ വളർത്താനും ഉന്നത രീതിയിലേക്ക് എത്തിക്കാനും എന്നെ സഹായിച്ചു അതുകൊണ്ട് തന്നെ അതു മാത്രമല്ല നൃത്തം ചെയ്യാനുള്ള കഴിവ് എനിക്ക് ജന്മനാൽ കിട്ടിയിട്ടുള്ളതാണ് താള ബോധവും നൃത്തം ചെയ്യുകയും വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ നൃത്ത ചുവടുകളും എല്ലാ നൃത്ത പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് പ്രധാനമായി എനിക്ക് ഈ മൂന്ന് കഴിവുകളാണ് ഉള്ളത് കലോൽസവ വേദിയിലേക്കുള്ള ഓരോ അവസരങ്ങളും ഞാൻ പാഴാക്കാറില്ല കലോൽസവ വേദികളിൽ ഞാൻ കാല സംഗീതത്തിൻ്റെ പല ഇനങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ പൂർണ്ണമായി മു അതിൽ പൂർണ്ണമായി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാറുമുണ്ട്

വരയ്ക്കാനുള്ള കഴിവ് എനിക്ക് ജന്മനാൽ കിട്ടിയതാണ് ഈ മൂന്നു കഴിവുകളും എനിക്ക് ജന്മനാൽ കിട്ടിയതാണ് അതിൽ വരയ്ക്കുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ദിവസേനയുള്ള പരിശീലനം മാത്രമേ നമ്മളെ മുന്നോട്ട് എത്തിക്കാൻ സഹായിക്കുകയുള്ളൂ നൃത്തം എന്നു പറയുമ്പോൾ നമ്മൾക്ക് പിന്നെയും നമ്മൾ അതിലേയ്ക്ക് അത് കണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ അതിലേയ്ക്ക് എത്തി എത്താൻ പറ്റും അതിൻ്റെ കണ്ടു കൊണ്ടുള്ള പഠനം തന്നെയാണ് അതിനെ മുന്നോട്ട് എത്തിക്കാൻ സാധിക്കുന്നത്

നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ നമ്മൾ അതിലേയ്ക്ക് എത്തി അതിലേയ്ക്ക് അതിനെ മനസ്സിൽ കണ്ട് പൂർണ്ണമായും പരിശീലിച്ച് അതിലേയ്ക്ക് എത്താൻ എത്തുന്നതു തന്നെയാണ് നമ്മളെ അതിലേയ്ക്ക് കൂടുതൽ എത്തിക്കുന്നത്